എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ് ബിരിയാണി അതുപോലെ മന്തി കബ്സ ഇതൊക്കെയാണ് അതൊക്കെയാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കിത്തരുന്ന ഇതൊക്കെയാണ് കടികൾ പരിപ്പുവട ചിക്കൻ റോൾ കട്ട്ലറ്റ് ഉഴുന്നുവട അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട ചട്ണിയും സാമ്പാറുമൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ കാപ്പീനോടൊപ്പം ഒരുപാട് കടികളാക്കിത്തരും ഉമ്മ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഇതൊക്കെയാണ് ചോറും ചമ്മന്തി വടുക് ഉണക്കമീൻ പൊരിച്ചത് ഇതൊക്കെയാണ് പപ്പടം ഇതൊക്കെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എനിക്ക് അതുപോലെ രാവിലെ ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കൂടുതലിഷ്ടം പുട്ട് കടലക്കറി അതുപോലെ ഇഡ്ഡ്ലി സാമ്പാർ അതൊക്കെയാണ് കൂടുതലായിട്ട് എനിക്കിഷ്ടം ഇതൊക്കെയാണ് പിന്നെ വേറെന്താണെന്നു വച്ചാൽ ബിരിയാണിതന്നെ ഇഷ്ടം ഏറ്റവും കൂടുതലിഷ്ടം ബിരിയാണിയാണ് ഇപ്പോൾ എനിക്ക് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയാൽ ഞാൻ രാവിലേയും ഉച്ചയ്ക്കും രാത്രിയും ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ തലേന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണെങ്കിലും ഉച്ചയ്ക്കും രാത്രിയും അതു കഴിക്കും ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെയും കഴിക്കും അതെൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലിഷ്ടം ബിരിയാണിയാണ് ഈ ബാക്കിയുള്ളതൊക്കെ എനക്കിഷ്ടമാണ് കഴിക്കില്ലയെന്നല്ല എല്ലാം കഴിക്കും കൂടുതലിഷ്ടം ഇതൊക്കെയാണ്